എൻ്റെ ജോലി കരിയറിൻ്റെ ഭാവി വച്ച് നോക്കുമ്പോൾ എനിക്ക് വരും തലമുറക്ക് വേണ്ടി എന്ത് ചെയ്യാനാകും അല്ലങ്കിൽ അവർക്ക് വേണ്ടി നല്ലതെന്തെങ്കിലും ചെയ്യണമെന്നാണ് എൻ്റെ കരിയറിൻ്റെ ഭാവി ഞാൻ ഭാവി ഞാൻ ആഗ്രഹിക്കുന്ന കാരണം ഇനി വരുന്ന തലമുറക്ക് നമ്മളെ പോലെ പുസ്തകം വച്ചോ അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള വിദ്യാഭ്യാസ രീതികളൊന്നും അല്ല എല്ലാത്തിലും മാറ്റങ്ങൾ വന്ന് കൊണ്ടിരിക്കുകയാണ് ഓരോ നാള് കഴിയുന്തോറും വിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കുന്ന രീതിയെല്ലാം പുതിയ പുതിയ ടെക്നോളജികൾ യൂസ് ചെയ്തും സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കരിയറ് വച്ച് എനിക്ക് വരുന്ന കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം പണ്ടുള്ളതു പോലെ പുസ്തകങ്ങള് വച്ച് പഠിപ്പിക്കുന്ന രീതിയെല്ലാം മാറി കൊണ്ടിരിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇനി വരുന്ന തലമുറക്ക് എഐ എഐ വഴി അല്ലങ്കിൽ ഡിജിറ്റൽ മീഡിയ വഴി പഠിപ്പിക്കാനും അതുപോലെ അവർക്ക് മനസ്സിലാക്കാനും ഉള്ള എന്തെങ്കിലും എല്ലാം ചെയ്യണമെന്നാണ് എൻ്റെ ഭാവി കരിയറിൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ ചെയ്യുന്ന ജോലി ഇതുമായി ബന്ധപ്പെട്ടതായത് കൊണ്ട് തന്നെ അതെല്ലാം ഭാവി തലമുറക്കൊരു മുതൽക്കൂട്ട് ആകുമെന്ന് ഞാൻ കരുതുന്നു ഇതെല്ലാമാണ് എൻ്റെ കരിയറായി ഞാൻ ആഗ്രഹിക്കുന്നത്